ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം നമുക്ക് നിരവധി ഗുണങ്ങൾ കൃഷി മേഖലയിൽ അല്ലെങ്കിൽ മൽസ്യ ബന്ധനത്തിൽ മൽസ്യ ബന്ധനം മൃഗപരിപാലനം ഷീരോദ്പ്പാദനം എന്നീ മേഖലകളിൽ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ വളർച്ചയാണ് ഉണ്ടായേക്കുന്നത് കൃഷിയുടെ കാര്യം പറയുക ആണെങ്കിൽ സാങ്കേതിക വിദ്യ വളർന്നത് സാങ്കേതിക വിദ്യ നിങ് വളർന്നത് വഴി നമ്മുടെ കൃഷികളിൽ ആവശ്യമായ വെള്ളത്തിൻ്റെ ആവശ്യം കാര്യങ്ങൾ ഒക്കെ ആണെങ്കിലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമുക്ക് അത് എളുപ്പം എളുപ്പമാക്കുകയും അതുവഴി നമുക്ക് നമ്മുടെ പണിയുടെ അളവ് കുറക്കാൻ പറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നേരെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ സ ഓരോ അല്ലെങ്കിൽ ഓരോ ചെടികൾക്ക് ആവശ്യമായ വെള്ളം അല്ലെങ്കിൽ വളം ഒക്കെ കൊണ്ട് നമ്മൾ ഒഴിക്കുന്ന സാഹചര്യം ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ആ സാങ്കേതിക വിദ്യയുടെ വളർച്ച വന്നതിലൂടെ നമുക്ക് മെഷ്യൻ അല്ലെങ്കിൽ മോട്ടർ വഴി നമുക്ക് അതിന്റെ ഓരോ ചെടികൾടേം ചുവട്ടിൽ വളം ഇല്ലെങ്കിൽ വെള്ളം എത്തുന്ന രീതിക്ക് ക്രമീകരിക്കാനും അത് വഴി നമ്മുടെ പണിയുടെ കഷ്ടപ്പാടിൻ്റളവ് കൊറക്കാനും നമക്ക് സ സാങ്കേതിക വിദ്യ വളരെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഒരു മരത്തിനെ മരം നടാൻ ഒക്കെ ആണേലും ഒരു കുഴി എടുക്കാനൊക്കെ ആണേലും നമ്മൾ പണ്ട് പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു നാല് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തൂമ്പാ വെച്ച് കുഴി എടുത്തിരുന്ന സാഹചര്യം ആണെങ്കിൽ ഇപ്പോൾ അതെ സമയത്ത് സാങ്കേതിക വിദ്യയുടെ വളർച്ചകളിൽ നമുക്ക് ഇങ്ങനെ മരങ്ങൾ നടാൻ കുഴികൾ എടുക്കാനുള്ള മെഷിനും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉപകരണങ്ങൾ ഒക്കെ കണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഇതു വഴിയൊക്കെ നമ്മുടെ നമ്മുടെ സമയം ലാഭിക്കാനും അതുവഴി കൃഷി മെച്ചപ്പെടുത്താനും ഉള്ള ഒരു കാരണമായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൽസ്യ ബന്ധനത്തിൻ്റെ കാര്യം പറയുക ആണെങ്കിലും പണ്ടൊക്കെ വള്ളത്തിൽ പോയി ആൾക്കാർ വല മീൻ പിടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം മാറി ഇപ്പം സാങ്കേതിക വിദ്യ വളർന്നത് വഴി അവർ മുന്നോട്ട് നല്ല നല്ല കണ്ട് പിടുത്തങ്ങൾ വരികയും അവർ അത് വഴി മത്സ്യബന്ധനം മുന്നോട്ട് കൊണ്ടുപോവേം ചെയ്യുന്നു അതിൽ ഒന്നാണിപ്പം ഫിഷിങ് ബോട്ട്സിൻ്റെ അല്ലെങ്കിൽ മീൻ പിടിക്കാനുള്ള ബോട്ടുകളൊക്കെ കണ്ട് പിടിക്കുന്നത് അതായത് മെഷിനാൽ വർക്ക് ചെയ്യുന്ന ബോട്ട്കളപ്പം ഇത് വഴി മൽസ്യ ബന്ധനം ആൾക്കാർക്ക് അല്ലെങ്കിൽ മൽസ്യം പിടിക്കാൻ മീൻ പിടിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് നല്ല സഹായം ആയി കാരണം അവരുടെ കഷ്ടപ്പാട് കുറക്കാൻ പറ്റി പണ്ടൊക്കെ നമ്മൾ തുഴഞ്ഞ് കടലിന് നടുക്ക് പോയി വേണം മീൻ പിടിക്കാനെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ മെഷിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ മോട്ട് ബോട്ട് ഉപയോഗിച്ച് നമുക്ക് മീൻ പിടിക്കാൻ പോകാനും അതുപോലെ തന്നെ മീൻ പിടുത്തക്കാർക്ക് വേണ്ടി തന്നെ വലയും അല്ലെ മീൻ പിടിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാം സെറ്റപ്പുകളെല്ലാം ഉള്ള ബോട്ട്കളുവാണേലിപ്പം നെരങ്ങ നെരത്തുകളിൽ ഉണ്ട് അപ്പം നമുക്ക് മൽസ്യ ബന്ധനത്തെ മൽസ്യ ബന്ധനം എന്നാൽ ഇതിലാണ് എങ്കിൽ കൂടി നമുക്ക് സമയം ലാഭിക്കാൻ അതുവഴി പല അപകടങ്ങളുടെ അളവ് കുറക്കാൻ നമ്മുടെ ഇത് വഴി സാങ്കേതിക വിദ്യ നമ്മളെ സഹായിക്കാറുണ്ട് പിന്നെ മൃഗ പരിപാലനത്തിൻ്റെ കാര്യം പറയുക ആണെങ്കിൽ ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച വന്നത് വഴി നമുക്ക് മൃഗ പരിപാലനം വളരെ എളുപ്പായിട്ട് മാറിയിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സാങ്കേതിക വിദ്യയുടെ വളർച്ച വന്നത് വഴി നമുക്ക് മൃഗങ്ങളിലെ രോഗങ്ങൾ ഒക്കെ പെട്ടെന്ന് കണ്ട് പിടിക്കാനും അതുപോലെ തന്നെ ആ ആ അവർക്ക് മൃഗങ്ങളെ പരിപാലിക്കാൻ വേണ്ട കാര്യങ്ങൾ ഭക്ഷണം ആണേലും വെള്ളം ഒക്കെ ആണെങ്കിലും അതിന് സമയാ സമയത്ത് കിട്ടുന്ന രീതിക്ക് നമുക്ക് അതിന് പ്രോപ്പറായിട്ട് എന്താ പറയുന്നത് മെഷ്യൻ സെറ്റ് ചെയ്ത് വെച്ച് അവരുടെ ഭക്ഷണ ശാലയിൽ ത അവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഭക്ഷണം എത്താനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെ ഇപ്പം ലഭ്യമാണ് ഇത് വഴി മെയിനായിട്ട് കൃഷിക്കാരുടെ കഷ്ടപ്പാടുകൾ കുറക്കാനും അതുവഴി അവരുടെ വരുമാനം കഷ്ടപ്പാട് കുറക്കുക അതുവഴി അവരുടെ വരുമാനത്തിനാണേലും സാങ്കേതിക വിദ്യ വളരെ ഉപകാരപ്രദമാണ് അവർക്ക് അത് അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ കൃഷി മൽസ്യ ബന്ധനം എല്ലാം ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ എല്ലാം സാങ്കേതിക വളർച്ച വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്